ഞാൻ എൻ്റെ തോട്ടത്തിൽ ഉണ്ടാകുന്ന പൂക്കളും പഴങ്ങളും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പൂക്കളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഓണം സീസൺ ആണല്ലോ കഴിഞ്ഞത് അപ്പം ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അധികമൊന്നും അതായത് നമുക്ക് എനിക്ക് മേടിക്കണ്ട വന്നിട്ടില്ല ആട്ടങ്ങളൊന്നും ഒന്നും എന്നാലും കുറച്ച് മേടിച്ചു അതായത് കുറച്ച് കുറച്ച് നമുക്ക് കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് കുറച്ച് മേടിച്ചു പിന്നെ വീട്ടില് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് നിറം പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ അയൽ വക്കത്തിലൊന്നും കുറെ ഒന്നും ഉണ്ടാവില്ലല്ലൊ അപ്പോൾ നമുക്ക് തിരുവോണദിനത്തില് വലുതായിട്ട് ഇടണമല്ലൊ അപ്പോൾ അതിന് വേണ്ടി നമ്മള് ടൗണില് പോയിട്ട് മേടിച്ചു പിന്നെ അന്നാണ് അതായത് ഓണത്തിൻ്റെ ടൈം മാത്രമാണ് ഈ പൂക്കളെല്ലാം പറിക്കുക അല്ലാത്ത സമയമൊന്നും പറിക്കാറില്ല പിന്നെ റോസൊക്കെ നമ്മൾ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെട്ടണമല്ലൊ അതായത് അത് വാടിക്കഴിയുമ്പോൾ നമ്മൾ അത് വെട്ടികൊടുക്കും എന്നാലേ പുതിയ ചെടി പൂക്കൾ ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ ചെടികളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് അത്യാവശ്യം നല്ലോണം പിടിച്ച് അതായത് വലിയ ചെടിയൊക്കെയായിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് വേറെ എവിടെങ്കിലും കുത്തികൊടുക്കും പിന്നെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ കക്ഷണം കൊടുക്കും പിന്നെ അതുപോലെ തന്നെ പഴങ്ങളെന്ന് പറഞ്ഞാൽ പഴങ്ങള് അതിനും മാത്രം ഒന്നുമില്ല നമ്മുടെ ഇവിടെ ഒരു റോബസ്റ്റ കുല മാത്രമേ ഉള്ളു റോബസ്റ്റ കുല മാത്രമേ ഉള്ളു അത് പിന്നെ അതായത് നമുക്ക് മുഴുവൻ ഒന്നും എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ വീ വീടിൻ്റെ അടുത്ത് ഉള്ളവർക്ക് കൊടുക്കും പഴം അല്ലെ പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോകുമല്ലോ അപ്പം അതുകൊണ്ട്